ആ ഹലോ ആ ടീച്ചറെന്നാ പറഞ്ഞോ എന്താണ് അതെ പറഞ്ഞോ ആരിപ്പോൾ ആരാമ്മപ്പത് ആര് ആര്

ഏത് പ്ലസ് ടൂ സയൻസ് പഠിക്കുന്നാ ആ ഓൻ സ്കൂള് ആ ഓൻ സ്കൂള് കുഴപ്പമില്ലല്ലോ സ്കൂള് ഞാൻ പറയട്ടാ ഞാൻ പറഞ്ഞോട്ടത്തീ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് താ മറ്റേ ഓൻ പഠിക്കുന്നില്ലാന്നല്ല പഠിക്കണില്ല ഓൻ എന്തേച്ചാൽ ഓൻ പബ്ലിക് എക്സാമിനെടുക്കുന്ന് എടുക്കുന്നാണ് പറയുന്നീട സ്കൂൾൽ ആ പഠിക്കാൻ കഴിയും ഉസ്കൂള് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓൻ ഉത്തരം പറയലുണ്ട് പക്ഷേ എന്നാലും കുറച്ചും കൂടി കുറച്ചും കൂടി ആക്കണം ആ ഓൻ സ്കൂളിൽ പറഞ്ഞ് രാവിലെ എണീച്ച് വായിക്കുന്നൂന്ന്

എണീക്കലുണ്ടപ്പോൾ എണീച്ച് കിടക്കൽ

ആ ആ ആ അത് ഒരു ഒരു മോനേയുള്ളൂ ഓൻ എത്രയാണ് പഠിക്കുന്ന് അദ്വൈൻ്റ അനിയത്തിയാണ് ആ ആയിഷ ആ പ്ലസ് വണ്ണ് പഠിക്കുന്ന പെണ്ണ് ആ ആ ആ ആ പത്താം ക്ലാസ് നല്ല മാർക്കുണ്ടോ പത്താം ക്ലാസ് നല്ല മാർക്കുണ്ട ആ അദ്വൈനോ

അദ്വൈത് നല്ല പഠിച്ചീന പത്താം ക്ലാസിലെല്ലാം ആ ഇപ്പോൾ പഠിക്കുന്നില്ല

ആ ഓൻ കുറച്ച് ഒഴപ്പുന്നുണ്ടിപ്പോൾ എന്താ പഠിക്ക